ഗുഡ് മോർണിംഗ് മാഡം എന്താ വേണ്ടത് ആ പറഞ്ഞോളൂ മാഡം ഓക്കെ മാഡം ആ ആദ്യം നമുക്ക് ഏത് റേഞ്ച് മുതലാണെന്ന് പറയാം റേഞ്ച് ഇപ്പോൾ നമുക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫൈവ് ഫൈവ് ഹണ്ട്രഡ് തുടങ്ങി തൗസൻഡുണ്ട് പിന്നെ തൗസൻഡിലേക്ക് അബോവ് ഉണ്ട് അങ്ങനെയാണ് വരുന്നത് നമ നമുക്ക് ആ എന്ന് പറയുമ്പോൾ നമുക്ക് ടിഷ്യു വരുന്നുണ്ട് പിന്നെ കൈത്തറി വരുന്നുണ്ട് കൈത്തറിയിൽ തന്നെ പറയുമ്പോൾ നമുക്ക് മ്യൂറൽ പെയിൻ്റിംഗ് വരുന്നുണ്ട് പലതരം പെയിൻ്റിംഗ് വരുന്നുണ്ട് ഫ്ലവറ് പിന്നെ ഭഗവാമാരുടെ പ്രിൻ്റിംഗ് അങ്ങനെ ഒക്കെ വരുന്നത് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ഗോൾഡൻ ത്രെഡ് വർക്കില് വെരുന്ന ഐറ്റംസുണ്ട് അങ്ങനെ നമുക്ക് പല പല ഡിസൈനില് വരുന്നുണ്ട് മാഡത്തിന് എങ്ങനെയാണ് നോക്കണ്ടത് മറ്റേ പെയിൻ്റിംഗിൻ്റെ ആണോ അതോ ത്രെഡ് വർക്കിൻ്റെ ആണോ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ഐറ്റംസ് കാണിച്ച് തരാം എന്നിട്ട് മാഡം അത് നോക്കിയിട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പറ ഇങ്ങനത്ത മോഡലുകളാണുള്ളത്

ഓക്കെ ഏകദേശം എത്ര പീസ് വേണ്ടി വരും എന്നൊന്ന് പറയാവോ പതിനഞ്ച് പീസ് ഓക്കെ ഓക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിളുള്ളത് നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല മാഡത്തിന് ഇന്ന് തന്നെ സെലക്ട് ചെയ്യാനാണോ എങ്ങനെയാണ് ഇന്ന് തന്നെ മേടിച്ചിട്ട് പോകാനാണോ ഓക്കെ മാഡം ഇങ്ങനത്ത മോഡലാണുള്ളത് മാഡം നോക്കിക്കോളൂ എന്നിട്ട് സെലക്ട് ചെയ്തോളൂ അതിന് അനുസരിച്ച് നമുക്ക് പീസുണ്ടെങ്കിൽ മാഡം നാളെയോ മറ്റന്നാളോ വന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാം ഇങ്ങനത്തെ മോഡലാണുള്ളത് ആ ഉണ്ട് മാഡം ഇപ്പോൾ കാണിച്ച് തരാം ദാ ഇങ്ങനത്ത മോഡലാണുള്ളത് ഓക്കെ ഓക്കെ ഇത് വരുമ്പോൾ ടു തൗസ ടു തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് വരും നമുക്ക് ഇപ്പോൾ എന്താ മാഡം കേട്ടില്ല ആ പ്രിൻ്റ ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് ആ റേറ്റൊക്കെ വരും പിന്നെ നമുക്ക് പിന്നെ നമുക്ക് വരുന്നത് വേറൊര് മോഡൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കസവ് പല ടൈപ്പുകള് കസവ് വരുന്നുണ്ട് അതായത് ഗോൾഡൻ പിന്നെ അതിൻ്റെ കൂടെ റെഡ് അങ്ങനെ മിക്സ് ചെയ്ത് വരുന്നതുണ്ട് ആ അത് തന്നെ അത് തന്നെ ഓക്കെ മാഡം ഇങ്ങനെ വരും ആ അതിന് പല കളറുണ്ട് ബ്ലൂ ഉണ്ട് റെ ഉണ്ട് പിന്നെ യെല്ലോ ഉണ്ട് അങ്ങനെ പല കളറുകൾ നമുക്ക് അവൈലബിളാണ് ആ വിത്ത് ബ്ലൗസാണ് ആ ആ ഓക്കെ മാഡം ഓക്കെ ഓക്കെ നമ്മൾ ആ നമ്മൾ ഇപ്പോൾ ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മള് ആ ആ എമൗണ്ട് കുറച്ച് തരുന്നതായിരിക്കും ആ ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതായിരിക്കും ഓ ഓക്കെ താങ്ക്യൂ